എൻ്റെ എഴുത്തിനെ മറ്റ് എഴുത്തുകാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വലിയ എഴുത്തുകാരി ഒന്നും അല്ല എങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ വല്ല ആർട്ടിക്കിൾ പോലെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുകയും അതുപോലെ എന്തെങ്കിലും ചെറിയ ചെറിയ മാറ്ററുകൾ ഒക്കെ എഴുതി ഞങ്ങളുടേതായ രീതിയിലുള്ള ഞങ്ങളുടെ സമൂഹത്തിൻറേതായ രീതിയിലുള്ള ചെറിയ മാഗസീനുകളിലൊക്കെ പ്രസിദ്ധീകരിക്കുകയേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ വലിയ എഴുത്തുകാരി എന്നുള്ള ലേബൽ ഒന്നും മുദ്ര ലേബലിൽ ആയിരിക്കുവാനായിട്ടുള്ള അർഹതയൊന്നും എനിക്കില്ല പിന്നെ എനിക്ക് ഇൻട്രസ്റ്റിങ്ങ് ആണ് വായിക്കുക ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുംകൂടെ ഇഷ്ടമാണ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എഴുതാനും